ഹലോ മന്നാ റസ്റ്റോറൻറ് അല്ലേ ഞാനേ കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് സിദ്ധാർഥ് ആ അതെ അതെ കുറച്ച് ഞാൻ അതായത് മന്തിയും ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്യാ അല്ല ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ അതിനകത്തു നിന്ന് അതൊക്കെ എന്തായാലും എനിക്ക് ആവശ്യമുണ്ട് ഞാനാ ആ പറഞ്ഞ അഡ്രസ്സിൽ തന്നെ നിങ്ങൾ എനിക്ക് എത്തിച്ചാൽ മതി പിന്നെ ഞാനെന്താച്ചാൽ വിളിച്ചത് എനിക്ക് അതിൻ്റെ കൂടെ മിറണ്ട ഉണ്ടോ അവിടെ ആ അത് ഒരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിൽ എനിക്ക് വെക്കണം പിന്നെ സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു അത് ഒരു അര ലിറ്ററിൻ്റെയോ ഇപ്പം അറുനൂറ് എംഎൽ ആണല്ലോ നമ്മൾ നാൽപ്പത് രൂപേൻ്റെ വാങ്ങുന്നത് അതെ അത് വെച്ചാൽ മതി ആ ഇത് ഈ രണ്ടു സാധനം എനിക്ക് വെക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് വേറൊരു രണ്ടുമൂന്നു സാധനം കൂടി ഓർഡർ ചെയ്യാൻ ഉണ്ടായിരുന്നു ആ അതെ അതെ അതെ ഒരു ഒരു പത്ത് ചപ്പാത്തിയും ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ബീഫും അതെ അതെ അതെ ആ അതെ ഈ മൂന്ന് എല്ലാം ഒരുമിച്ച് തന്നാൽ മതി എനിക്ക് എൻ്റെ അഡ്രസ്സിൽ തന്നെ ഞാനിപ്പോൾ അയച്ച നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് തന്നിരുന്നല്ലോ ആ അഡ്രസ്സിൽ തന്നെ എനിക്ക് കൊണ്ട് തന്നാൽ മതി ആ ഇത്രയും സാധനം മതി അതും അത് ഒന്ന് പാക്ക് ചെയ്തിട്ട് കേട്ടോ ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ